ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലായിടത്തും ടാപ്പുകളിലാണ് കൂടുതലായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുടത്തിലൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേണം വെള്ളം നമ്മള് ഉപയോഗിക്കാൻ വേണ്ടീട്ട് ഇപ്പം ബാത്രൂം പോകാനാണെങ്കിലും നമുക്ക് കുടിക്കാനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് പണ്ട് കുഴൽ കിണറ് പോൽത്തൊരു സംഭവം ഉണ്ട് നമ്മളത് കൈ വെച്ചടിച്ച് കഴിഞ്ഞാൽ മാത്രമെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതായത് നമ്മള് പോയിട്ട് ടാപ്പൊന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കൈലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ടാങ്കിലേക്കാണ് നേരിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മോട്ടറു വഴിയാണെങ്കില് ഇപ്പോൾ പൈപ്പ് വഴി വരുന്ന വെള്ളമാണെങ്കിലും ടാങ്കിലേക്കാണ് നേരിട്ട് കയറുന്നെ അപ്പോൾ പല രീതിയിലുള്ള ഉപയോഗവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് പക്ഷേ വെള്ളം വല്ലാതെ വല്ലാത്ത രീതിയില് നഷ്ടാവുന്നൊരു ഇതാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെറുതെ ടാപ്പങ്ങ് തുറന്നു വെക്കും അങ്ങനെ വെള്ളം കുറെ നഷ്ടപ്പെടും ഇപ്പം ഒര് ലിറ്ററ് നമ്മളുപയോഗിക്കുന്ന സമയത്ത് ചിലപ്പം രണ്ട് ലിറ്ററായിരിക്കും ടാപ്പിലൂടെ ഉപയോഗിക്കുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷേ നമുക്ക് വളരെയധികം എളുപ്പമാണ് നമ്മളിപ്പം എവിടേങ്കിലും ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എളുപ്പമാണ് ഇപ്പം സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കാരണം അവർക്ക് പെട്ടന്ന് വെള്ളവും കാര്യങ്ങളുമൊക്കെ ടാപ്പ് തുറന്ന് കഴിഞ്ഞാൽ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് പെട്ടന്ന് സ്കൂളിൽ പോകാനും ഓഫീസിലേക്കൊക്കെ പോകാനും വേണ്ടീട്ടും സാധിക്കുന്നു അപ്പം ടാപ്പ് വെള്ളം ലഭിക്കുന്നുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഉണ്ട് അപ്പം പല രീതിയിലുള്ള ഉപയോഗവും കാര്യങ്ങളും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ടാപ്പ് വെള്ളമുള്ളത് കൊണ്ട്